പൊറോട്ട മുട്ടക്കറി പൊറോട്ടയും ബീഫ് പഴംപൊരി പഴംപൊരി ബീഫ് പിന്നെ ചിക്കൻ ബിരിയാണി പിന്നെ കപ്പ ബിരിയാണി കപ്പയും കോഴിയും കപ്പയും മീൻകറിയും ചോറും കറികളും ഒക്കെ